ഹലോ എൻ്റെ പേര് ജയമ്മ വർഗീസ് എനിക്ക് ഞങ്ങൾ ചേന്നങ്കരയിലായിരുന്നു അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഇത്തിത്താനം ചങ്ങനാശ്ശേരി ഇത്തിത്താനം എന്ന സ്ഥലത്തേക്കു വന്നു ഞങ്ങളുടെ ചേന്നഗിരിയിലുള്ള പിന്നെ ഗ്യാസ് കണക്ഷൻ ഞങ്ങൾക്കിപ്പോൾ ഇങ്ങോട്ടു മാറ്റണമെന്നുണ്ട് അതിന് ഇനി എന്തുവാണ് ഞങ്ങൾ ചെയ്യേണ്ടത് അതിന് എന്തെല്ലാമാകട്ടെ വെക്കണം ഞങ്ങൾക്ക് പുതിയ രീതിയിലുള്ള കണക്ഷൻ എടുക്കുന്നതിന് എന്തെല്ലാം അപേക്ഷകളാണ് വെയ്ക്കേണ്ടിയത് ഞങ്ങൾക്കിവിടത്തേക്ക് പുതിയ വീടു വെച്ചു മാറിയതാണ് അതുകാരണം ഞങ്ങൾക്ക് ഇവിടത്തേക്ക് ആവശ്യമുണ്ട് ഗ്യാസ് കണക്ഷൻ ആവശ്യമുണ്ട് അതിനെ വേണുന്നതായ കാര്യങ്ങളെ പറ്റി ഒക്കെ അറിയാൻ താത്പര്യമുണ്ട് നമുക്ക് എവിടെ കൊടുക്കണം ഇത് മേടിക്കുന്നത് എവിടെ നിന്നാണെന്നും നം കൃത്യമായിട്ട് അറിയത്തില്ല അതേപറ്റി എല്ലാം അറിയാനായിട്ട് ആഗ്രഹമുണ്ട് പിന്നെ പിന്നെ അവിടുത്തെ ഞങ്ങളുടെ ഗ്യാസ് എവിടെ കൊടുത്തിട്ട് വേണം ഇങ്ങോട്ടു മാറ്റാൻ ആയിട്ട് പിന്നെ നമുക്ക് അവിടെ കിട്ടുന്നത് ബുക്ക് ചെയ്തു നമുക്ക് വള്ളം വഴി വീട്ടിൽ കൊണ്ട് തരിക ചെയ്തു കൊണ്ടിരുന്നത് പിന്നെ അതു നമ്മൾ ഇനിയും അവിടെ തന്നെ എവിടെയാണ് കൊടുത്തു ഞങ്ങൾ നേരത്തെ മാങ്കമ്പിലാണ് കൊടുത്ത മാങ്കമ്പിലാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഇതെല്ലാം ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത് അവിടെ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് മേടിച്ച് ഇവിടെ കൊണ്ട് തന്നാൽ മതിയോ എന്തുവാ അതിൻ്റെ കാര്യമെന്നുള്ളത് ഞങ്ങൾക്കറിയണം നമുക്ക് ഇപ്പം വീടു പണി തീരുന്ന മുറയ്ക്ക് ഇതു കിട്ടുകയും ചെയ്യണം പിന്നെ അതിനു ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടിയത് എന്ന് പിന്നെ ഏത് ഏജൻസി ആണ് വിളിക്കേണ്ടത് എന്നൊക്കെ ഞങ്ങൾക്ക് ചെയ്യണം ഞങ്ങൾക്കിത് ഡെലിവറി ചെയ്യുന്ന എങ്ങനെയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യത്തെപ്പറ്റിയും ഡീറ്റെയിൽസ് ആയിട്ടുള്ള